തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗതാഗത പ്രശ്നമാണ് ഗതാഗതം ത്തിന് ഈ ഇവരുടെ പ്ര പ്ര രാഷ്ട്രീയ പ്രവർത്തകരുടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സര ഓട്ടങ്ങൾ നടക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഒന്നും പെട്ടന്ന് നടന്ന് പോകാൻ പോലും പറ്റാത്ത സ്റ്റേജാണ് ഈ വഴിയേൽ കൂടെ തിരഞ്ഞെടുപ്പ് സമയത്ത് വണ്ടികൾ എവിടേലും ഇവർ രാഷ്ട്രീയ പ്രവർത്തകർ ആരേലും വന്ന് പ്രസംഗിക്കാൻ ഒക്കെ വന്നിട്ടുണ്ടേൽ നമ്മൾ ഒരു രോഗിയെയും കൊണ്ട് പോവുകയാണെങ്കിൽ അവർ അതിലെ വിടത്തില്ല പോലീസുകാർ അതിലെ നമ്മളെ വിടത്തില്ല വേറെ ഏതെങ്കിലും ഒക്കെ വഴിയേ പോ പറഞ്ഞു വിടും നമുക്ക് വഴിയറിയത്തില്ലാത്ത ഒരോൾക്കാർ ആണ് വേറെ വഴി ഏതാ ചുറ്റിക്കറങ്ങി ചെല്ലുമ്പോഴത്തെനും ആ രോഗിയുടെ മരണം വരെ സംഭവിക്കാറുണ്ട് ആ രോഗികൾക്ക് ആ ഇതൊക്കെ ഓരോ പ്രശ്നങ്ങൾ ആയിട്ടാണ് ഞാൻ കാണുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് മന്ത്രിമാരൊക്കെ ഓരോ മുക്കിലും മൂലയിലും പ്രസംഗം സമയങ്ങൾ നടത്തി വരുമ്പോൾ അവർക്ക് അത് രസകരമാണെന്ന് പറഞ്ഞാലും സാധാരണ ജനങ്ങളെ അത് ഒത്തിരി ബാധിക്കുന്നെ ഒരു പ്രശ്നമായിട്ട് ഞാൻ ക കാണുന്നു